ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾക്കിടയിലെ സാംസ്കാരിക വിനിമയ വിനിമയത്തിനും ആശയ വിനിമയത്തിനും മലയാള ഭാഷ നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം എന്ത് പങ്കാണെന്നു ചോദിച്ചാൽ എന്താ മലയാള ഭാഷ ഇല്ലാതെ ഇപ്പോൾ ആരും അങ്ങനെ സംസാരിക്കുന്നില്ല കൂടുതലായിട്ടും മലയാള ഭാഷ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് പിന്നെയെന്നു പറഞ്ഞാൽ മലയാളം ഭാഷ ഇപ്പം നമ്മുടെ നം നാട്ടിൽ അയൽ നാട്ടിൽ നിന്ന് ആ അയൽ നാട്ടിൽ നിന്നാണെങ്കിലും ഹിന്ദിക്കാർ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് ബീഹാറിലുള്ളവർ ജമ്മുവിലുള്ളവരൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും മലയാളമൊക്കെ പഠിച്ച് നല്ല ക്ലിയറായിട്ട് തന്നെ നല്ലവണ്ണം മലയാളം സംസാരിച്ച് നല്ല പഠിച്ചിട്ടു പോകുന്നുണ്ട് എന്നാൽ നമ്മളാണെങ്കിൽത്തന്നെ അവരുടെ നാട്ടിൽ പോയിട്ട് മലയാളം സംസാ അവരുടെ ഭാഷ പഠിക്കാനോ സംസാരിക്കാനൊന്നും നമ്മൾ നോക്കാറില്ല അതുകൊണ്ടു തന്നെ എല്ലാ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും മലയാള ഭാഷ അറിയാത്ത ആ ആളുകൾ വളരെ കുറവായിരിക്കും എല്ലാവർക്കും കൂടുതലായിട്ട് മലയാള ഭാഷയൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും മലയാളം അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല എന്നാലും അവർ ചില സമയങ്ങളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്നു മലയാളമൊക്കെ പറഞ്ഞു ശ്രമിക്കാറൊക്കെ ഉണ്ട്